ചേട്ടാ നമസ്കാരം ആ എനിക്കിപ്പോൾ ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ മൂന്നാർ തേക്കടി ഭാഗത്തേക്ക് പോവാനാണ് ഉദ്ദേശിക്കുന്നത് പോവാൻ ഏതു സീസൺ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് ഓക്കേ ഈ കോട ഒക്കെ ഇറങ്ങണ ആ ടൈമിൽ ആയിരിക്കും അല്ലേ

നമുക്കിപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് പോവാനാണ് അപ്പോൾ ഒരു എട്ടു പത്തു പേരിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അത് എങ്ങനെ പോവാം നമുക്ക് നിങ്ങൾ ഓക്കേ അല്ലേ അപ്പോൾ കാർ എടുത്തിട്ട് പോവാൻ പറ്റും അല്ലേ അവിടെ ഓക്കേ അല്ലേ അപ്പോൾ അപ്പോൾ അതിന് അവിടെ എങ്ങനെയാണ് നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഓക്കേ ഓക്കേ അല്ലേ ചേട്ടന് അവിടെ പോയി കാര്യങ്ങളൊക്കെ അറിയില്ലേ അപ്പോൾ മുമ്പ് പോയ സ്ഥലങ്ങളൊക്കെ ആണോ അത്

ഓക്കേ അവിടെ ഓക്കേ അപ്പോൾ ഒരു മൂന്നാലു ദിവസത്തെ ട്രിപ്പാണ് ഉദ്ദേശിക്കണത് ഒക്കെ അപ്പോൾ നമുക്ക് സ്റ്റേ അടിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തു തരില്ലേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ ടെൻ്റ് ടെൻ്റിൻ്റെ ആണല്ലേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര ബഡ്ജറ്റ് വരും നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരില്ലേ അതേ അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നാലു ദിവസം കൊണ്ട് അവിടത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുവോ ഓക്കെ ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ട്രക്കിംഗ് നമുക്ക് രാത്രി കയറി പറഞ്ഞാൽ

ഓക്കേ എത്ര മണിക്കൂർ കയറി ഇറങ്ങാൻ അപ്പ് ആൻ്റ് ഡൗൺ ആണോ ഈ നാല് മണിക്കൂർ പറയണത് ഓക്കേ അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനും അതേപോലെ ആവുന്നില്ലേ പ്ലാൻ ചെയ്യാൻ പോകണ് ഒക്കെ ആ ഓക്കേ ഓക്കേ ശരി